ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലാണ് തൊഴിലും തൊഴിൽ വിപണിയും ഇന്ത്യയിൽ തൊഴിലും തൊഴിൽ വിപണിയും വളരുന്നത് ഏറ്റവും പതുക്കെയാണ് കൂടാതെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല ബി ടെക് എഞ്ചിനീയർ വിദ്യാർത്ഥികളെ ഉണ്ടാക്കി എടുക്കുന്നതല്ലാതെ ഇതിലേക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല ഗവൺമെൻറ്റ് ആയാലും അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല തൊഴിൽ രഹിതരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന അവസരങ്ങളാണ് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ കൂടാതെ തൊഴിൽ അവസരങ്ങൾ ഗവൺമെൻറ്റ് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പിൻവാതിലിലൂടെ നിയമനങ്ങൾ മറ്റ് തട്ടിപ്പുകളായി കുറേയൊക്കെ നില നിൽക്കുന്നു ഇങ്ങനെയുള്ള സ്ഥിതി ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന് കൊണ്ടിരിക്കുന്നത് കൂടാതെ തൊഴിൽ അവസരങ്ങളും തൊഴിൽ വിപണികളും ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല